ഓ കോഴിക്കോട് ജില്ലയില് ഒരുപാട് ഉല്ലാസ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റിയ ഒരുപാട് സ്ഥലങ്ങള് ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം കാരണം കോഴിക്കോട് ജില്ല അതിന് പറ്റിയ ഒരു സ്ഥലം കൂടെയാണ് കാരണം ഇപ്പം നമുക്ക് ബീച്ചുണ്ട് ബീച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൈകുന്നേര സമയങ്ങളിൽ ആൾക്കാരെ കൊണ്ട് ഒരേ തിരക്കും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവിടെ നല്ല രീതിയിലുള്ള ഒരു ഉല്ലാസ പ്രവർത്തനം നടത്താൻ പറ്റിയ ഒരു സ്ഥലമാണ് കടല് കാണാൻ വരുന്നവരും സൂര്യാസ്തമയം കാണാൻ വരുന്നവരൊക്കെ ഒരു പാടുണ്ട് പിന്നെ അവിടത്തെ ചൊരണ്ടി ഐസ് ഉപ്പിലിട്ട മാങ്ങാ ഉപ്പിലിട്ടത് അങ്ങനെ അതൊക്കെ കഴിക്കാൻ വേണ്ടി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പം പല സ്ഥലങ്ങളിൽ നിന്നും അങ്ങനത്തെ അതൊക്കെ കഴിക്കാൻ വേണ്ടീട്ടും അതൊക്കെ എൻജോയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒരുപാട് ആൾക്കാര് വരുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ നമുക്ക് പാർക്കുകൾ ഒരുപാടുണ്ട് ഇപ്പം നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ തന്നെ പാർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വരുന്നത് ടീയറ്ററുകളാണ് ടീയേറ്ററുകൾ ഇപ്പോൾ കോർണർ തിയേറ്ററുണ്ട് രാധ ടീയറ്ററ് അങ്ങനത്തെ ടീയേറ്ററുകള് കാര്യങ്ങളൊക്കെ ഉണ്ട് മെയിനായിട്ട് ഓരോ സിനിമകളൊക്കെ ഇറങ്ങുമ്പോഴും മലയാളികള് കൂടുതലായിട്ടും ടീയേറ്ററുകളിലാണ് പോകുന്നത് അത് സിനിമകൾ കാണാൻ വേണ്ടീട്ടും അത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടീട്ടും എല്ലാ തരത്തിലുള്ള സിനിമകളും അവര് പ്രോത്സാഹിപ്പിക്കാറുണ്ട് അങ്ങനെ പല രീതിയിലുള്ള പരുപാടികള് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഫെസ്റ്റിവലോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓരോ ഗാർഡൻസ് അതായത് പൂക്കളുടെ ഉത്സവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കില് അതൊക്കെ കാണാൻ വേണ്ടിയിട്ടും ഒരുപാട് ആൾക്കാര് പോകുന്നുണ്ട്